മലയാളഭാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് എന്താണെന്നുവെച്ചാല് നമ്മുടെ മാതൃഭാഷയായ മലയാളം അതിനെ നമ്മള് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്കിപ്പോള് പൊതുവായിട്ട് സ്കൂള് ഇംഗ്ലീഷ് മീഡിയം അതൊക്കെയായിട്ടാണ് ഇംഗ്ലീഷ് കുട്ടികളധികം ഇംഗ്ലീഷൊക്കെയായിട്ട് പഠിക്കുന്നത് അപ്പോള് അധികമൊക്കെ നമ്മുടെ സർക്കാർ സ്കൂള് പോലെ ഫുൾ മലയാളം മീഡിയം അങ്ങനെയൊക്കെ പഠിക്കുമ്പോള് കുട്ടികളില് പൊതുവേ ഇംഗ്ലീഷും ലാംഗ്വേജുമൊക്കെ പഠിക്കുന്ന രീതിയിലൊക്കെ കുറവ് വരികയാണെങ്കില് നമ്മുടെ മലയാളത്തെ നമ്മള് മാതൃഭാഷയല്ലേ മലയാളം അപ്പോള് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം പിന്നെന്താണെന്ന് വെച്ചാല് അവര് നമുക്ക് പുസ്തകങ്ങള് വായന അത് ഇനിയിപ്പോള് കുട്ടികളായാലും അതൊക്കെ ശീലിപ്പിക്കുക അവര് പൊതുവായിട്ട് ഇപ്പോള് ഇന്നത്തെ ന്യൂ ജനറേഷന് അധികവും ഇംഗ്ലീഷ് മീഡിയമായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് അവര് നമ്മുടെ മാതൃഭാഷയില് നിന്ന് അകന്നുനിൽക്കുന്നത് അപ്പോള് നമ്മള് മലയാളത്തില് കൂടുതല് സംസാരിക്കുക പിന്നെ പുസ്തകങ്ങളും പേപ്പറുമൊക്കെ നമ്മുടെ ഭാഷ മലയാള ഭാഷയെന്ന രീതിയില് ഭാഷയില് തന്നെ വായിക്കുക അതുപോലെ ന്യൂസ് പേപ്പറാണെങ്കിലും അതുപോലെ എന്താണ് പറയുക ബുക്കാണെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് വേണ്ടെന്നല്ല ലാംഗ്വേജാണ് പക്ഷെ മാതൃഭാഷയായിട്ട് നമ്മള് പഠിക്കണം ഇപ്പോള് പൊതുവായിട്ട് ഇംഗ്ലീഷ് മീഡിയങ്ങളും ഇതൊക്കെയല്ലേ അതൊക്കെ കുറച്ച് കുറച്ച് മലയാളം രീതിയില് ചെയ്യുക പിന്നെ നമ്മള് ഓരോ എഴുതുന്ന കവികള് അവരെയൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യാം നമ്മള് മിനിമം മാതൃഭാഷയെന്ന് വെച്ചാല് സപ്പോർട്ട് ചെയ്യണമെങ്കില് ഇതൊക്കെ തന്നെ കാരണം ഇപ്പോള് ഇന്നത്തെ ഇതില് അധികവും ഇംഗ്ലീഷ് മീഡിയം ഇത് സിലബസ് ഇതൊക്കെയാകുമ്പോള് കുട്ടികള് കുറവാണ് വരുന്നത് അപ്പോള് സപ്പോർട്ട് ചെയ്യുകയെന്നുവെച്ചാല് നമ്മള് മലയാളം മീഡിയം ആ രീതിയില് ലാംഗ്വേജ് മലയാളമാക്കി കുട്ടികളെയൊക്കെ കൂടുതല് പഠിപ്പിക്കുക അപ്പോഴൊക്കെ അതില് കുറേയൊക്കെ മാതൃഭാഷ കുട്ടികളൊക്കെ വരുമ്പോള് അതൊക്കെ അവര് സംരക്ഷിക്കാനായിട്ട് വരും